ഇന്ത്യൻ ഗതാഗത സംവിധാനം വളരെ നല്ല രീതിയിലേക്ക് തന്നെ പോകുന്നുണ്ട് കൂടുതലായിട്ടും എന്ന കോമണായിട്ടുട്ടുള്ള ആളുകള് കൂടുതലായിട്ടുപയോഗിക്കുന്നത് ട്രാൻസ്പ്പോട്ട് പബ്ലിക് ട്രാൻസ്പ്പോട്ട് ആണുപയോഗിക്കുന്നത് അത് ബെസ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടുപയോഗിക്കുന്നത് അപ്പോള് അതിൽ എന്ന സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെലവുകളാണതിലുള്ളത് അതുപോലെതന്നെ ട്രെയിൻ സംവിധാനങ്ങളും ഇന്ന് കൂടുതലായിട്ടുള്ള ആളുകളുപയോഗിക്കുന്നുണ്ട് ട്രെയിനിലാണേലും വളരെ ദൂരേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ കൂടുതലാളുകളും ട്രെയിനുപയോഗിക്കുന്നു എന്ന അടുത്ത ഉള്ള കാര്യങ്ങൾക്കൊക്കെ ബെസ്സുപയോഗിക്കുന്നു അതുപോലെതന്നിന്ന് ഫ്ലൈറ്റിൻറ്റുപയോഗോം നല്ല രീതിയില് കൂടിക്കൂടി വരുന്നുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ വളരെ അത്യാവശ്യമായിട്ട് കാണുന്ന സ്പീഡിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങള് തീർച്ചയായിട്ടും ഉപയോഗിക്കണം പിന്നെ ഗതാഗത സംവിധാനത്തിൽ നിലവിലെ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബസ്സിലൊക്കെ പോകുമ്പഴത്തേക്കും തീർച്ചയായിട്ടും ബ്ലോക്കുകളൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോള് അങ്ങനെ നമുക്ക് പറഞ്ഞ സമയത്തിന് നമുക്ക് ചെന്നെടുക്കാനായിട്ട് സാധിക്കാത്ത ചില ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട്